ആ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ലക്ഷ്മി അല്ലേ വെറ്ററിനറി സർജൻ അല്ലേ ആ മാം ഞാൻ തൃശൂരിൽ നിന്ന് നന്ദയാണേ എൻ്റെ വീട്ടിലൊരു പോമറേനിയൻ പട്ടിക്കുട്ടിയുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതായതൊരു രണ്ട് ദിവസമായിട്ട് അതിന് നല്ല ക്ഷീണമാണ് പിന്നെ വോമിറ്റിങ്ങ് ഒക്കെയുണ്ട് ഇടയ്ക്കിടക്ക് ഛർദ്ദിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര ഭയങ്കര ക്ഷീണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലെയൊന്നും ആക്ടീവ് ആയിട്ട് കളിക്കുന്നില്ല ഭക്ഷണം കൊടുത്താൽ കഴിക്കുന്നില്ല അതൊക്കെ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുക ഭയങ്കര തളർച്ച ഒക്കെ ആണതിന് അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് മാമിനെ വിളിച്ചതാണ് സാധാരണ കൊടുക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇപ്പോഴും കൊടുക്കാറ് നോർമലി എങ്ങനെയാണ് കൊടുക്കാറ് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെള്ള ചോറും പിന്നെ ചിക്കൻ ആണ് കൊടുക്കാറ്

പിന്നെ മാം രണ്ട് ദിവസം മുന്നേ ലിവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഒരു രണ്ടു മൂന്ന് കഷ്ണം ഒക്കെയാണ് കൊടുത്തത് അതിനു ശേഷം രണ്ട് ദിവസമായിട്ടാണ് ഈ തളർച്ചയും ക്ഷീണവും ഭക്ഷണം കഴിച്ചാൽ കൊടുക്കാത്തതും ഒക്കെയാൻ അതിന് ശേഷം

അതുതന്നെ ആയിരിക്കുമല്ലേ പ്രശ്നം വേറെ ഒന്നും ആയിരിക്കില്ലല്ലോ ആ അപ്പം ഇനി എന്താണ് ചെയ്യണ്ടത് മാം ഇളനീർ വെ വെള്ളം മാത്രം കൊടുത്താൽ മതിയോ രണ്ട് ദിവസം

ആ ഈ ഇളനീർ വെള്ളം കൊടുക്കുന്നതെന്ത് കോണ്ടാണ് മാം അപ്പം വേറെ ഭക്ഷണം ഒന്നും കൊടുക്കേണ്ടേ ചോറൊന്നും കൊടുക്കേണ്ടേ ആ അപ്പം രണ്ട് ദിവസമായിട്ട് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ഷീണത്തിലൊക്കെ മാറ്റം ഉണ്ടാവും അല്ലേ അപ്പോൾ അതിൻ്റെ ഭക്ഷണം ഒക്കെ കഴിച്ചോളുമായിരിക്കും അല്ലേ അപ്പം മാം എൻറെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഇളനീർ വെള്ളം മാത്രം കൊടുത്താൽ അതിനെ കൊണ്ട് രണ്ട് ദിവസം നിൽക്കാൻ പറ്റുമോ അതായത് വിശക്കില്ലേ ആ അപ്പം ഇളനീർ വെള്ളം രണ്ട് ദിവസം കൊടുത്ത് നോക്കാം അല്ലേ വേറെ ഭക്ഷണം ഒന്നും കൊടുക്കേണ്ട പിന്നെ ആ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം രണ്ട് ദിവസം എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അസുഖം കൂടുവാണെങ്കിൽ തളർച്ചയുണ്ടെങ്കിൽ കൂടുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം ഇത് ആ കറക്റ്റ് എവിടെയാണ് സ്ഥലം വരുന്നത് ഹോസ്പിറ്റൽ ആ ഓക്കെ മാം ഞാൻ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ പോരേ ഓക്കെ ശരി മാം താങ്ക് യൂ ഓക്കെ നന്ദി